ചിത്രം വരക്കാനും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും എല്ലൊം കഴിവ് എല്ലാവർക്കും കിട്ടില്ല അപ്പോൾ അതിനുള്ള കഴിവുകൾ കിട്ടിയ ആൾക്കാർ അവരെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് എടുക്കുക ഇപ്പോൾ ചിത്രം വരക്കുന്ന കുട്ടികളോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവർ ചിത്രം വരക്കുന്ന സമയത്ത് നമുക്ക് ഏത് തരത്തിലുള്ള ചിത്രങ്ങളാണ് നമുക്ക് വരക്കാൻ കയ്യാത്തതെന്ന് മനസ്സിലാക്കിയിട്ട് ആ വരയ്ക്കാൻ കയ്യാത്ത രീതിയിലുള്ള ചിത്രങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വരച്ച് വരച്ചു നോക്കുക അതിനെ ഇപ്പോൾ ഒരാളുടെ മുഖമാണ് വരക്കാൻ നമുക്ക് കിട്ടാത്തതെങ്കിൽ ആ മുഖം നമ്മൾ വരച്ച് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അതിനെ പിന്നെ വരക്കാൻ വേണ്ടി പറ്റും പിന്നെ ചിത്രം വരക്കുന്നതിൽ കുറേ തരത്തിലുള്ള ട്രിക്കുകളുണ്ട് അതെന്താണെന്നു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പലതരത്തിൽ നമുക്കതിനെ വരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളതുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുത്തിട്ട് അതുപോലെ വരച്ചു പഠിക്കാൻ ശ്രമിക്കുക പിന്നെ നല്ല രീതിയിലുള്ള പെൻസിലുകൾ ഉപയോഗിക്കുക നല്ല കറുപ്പുനിറം കൂടുതൽ തരുന്ന രീതിയിലുള്ള നല്ല ഷാർപ്പായിട്ടുള്ള നല്ല പെൻസിലുകൾ എച്ച് പി പോലെയുള്ള നല്ല പെൻസിലുകൾ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ കളർ ചെയ്യുമ്പോഴായാലും നല്ല ലൈറ്റ് കളേർസ് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്ന സമയത്ത് അതിനെ കൂടുതൽ കട്ടിയാക്കാത്ത രീതിയിൽ അതിനെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ ചിത്രത്തിൻ്റെ പുറത്തേക്ക് കളർ പെയിൻ്റ് വരാതിരിക്കാൻ വേണ്ടി കുട്ടികൾ നന്നായിട്ട് ശ്രമിക്കേണ്ടതാണ്